ഹല്ലോ അതെ പറയൂ മറ്റന്നാളത്തേക്കോ ഓ ഈയാഴ്ച എന്തായാലും ബുക്കിംങ്ങോക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നെക്സ്റ്റ് മൺഡേ ബുക്കിംങ്ങാക്കിയാൽ മതിയോ നമുക്കിപ്പോൾ ആദ്യത്തൊരു നൈൻ ടു ഒരു ടെൻ വരെ ബുക്കിംഗ് കഴിഞ്ഞുണ്ട് പിന്നെ ടു ടു ഫോറും വരെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ലെവൻ ടു ട്വൽവ് ഓക്കെ ആണെങ്കിൽ ഫിക്സ് ചെയ്യാം ഓക്കെ ഉപ്പേൻ്റെ പേരെന്താണ് ഓക്കെ വയസ്സ് ഓക്കെ അപ്പോൾ എന്തായാലും ഉപ്പേനെ കൊണ്ട് വായോ എന്നാൽ ചെക്ക് ചെയ്ത് ഉപ്പയ്ക്ക് വേറെ എന്തെങ്കിലും അസുഖം മുന്നുണ്ടാ പ്രഷറുണ്ടായിരുന്നൂലേ ആ ഈ പ്രഷറ് ഇത് മുന്നേ എവിടെയെങ്കിലും കാണിച്ചിട്ടുണ്ടോ ആ അല്ല ഈ കണ്ണിന് എന്തേലും വേറെ ആശുപത്രിലെല്ലം കാണിച്ചുണ്ടോ

ആ പ്രഷറുണ്ടല്ലോ പ്രഷറ് ആ പ്രഷറ് ചെക്ക് ചെയ്യണം കൊളസ്ട്രോള് ചെക്ക് ചെയ്ത് എനിക്കൊന്ന് റിപ്പോർട്ട് എന്തായാലും ആവശ്യം ഉണ്ട് ആ പിന്നെ കണ്ണിൽ നല്ല ചോപ്പുണ്ടിപ്പോൾ ആ അപ്പോൾ ആ അപ്പോൾ നല്ല ചോപ്പുണ്ടല്ലോ അപ്പോൾ ഈ കണ്ണിൽ അധികം പൊടി തട്ടാണ്ട് കണ്ണട വെച്ച് ഇരിക്കാൻ പറ ഉപ്പാൻൻ്റടുത്ത് തൽക്കാലത്തേന് ഇപ്പോൾ ഫുള്ള് ബുക്കിംങ്ങായോണ്ടാണ് അല്ലെങ്കിൽ നാളത്തന്നെ ഞാൻ സെറ്റ് ചെയ്തേരുമ്പോൾ ഫുൾ എല്ലാവരും ബുക്ക് ചെയ്ത് കഴിഞ്ഞ് ഒക്കെ നിങ്ങളുടെ വീട് എവിടെയായിട്ട് വരും ആ അപ്പോൾ ഹോസ്പിറ്റലിൻ്റടുത്തന്നെയാണ് അല്ലേ അപ്പോൾ കുഴപ്പമില്ല ആ അപ്പോൾ ഉപ്പേനെ എന്തായാലും ആ കൊണ്ട് വന്നാൽ ഫുൾ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിലായിട്ട് ചെക്ക് ചെയ്യുന്നുള്ളൂ ആ അപ്പോൾ ഓപ്പറേഷൻ്റെ കണ്ണിൽ തിമിരം നന്നായി കൂടിയുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഓപ്പറേഷൻ വേണ്ടി വരും അത് ഇപ്പോൾ നല്ല ചോപ്പുണ്ടുന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഇങ്ങനത്തൊരു കണ്ടീഷനായാലും നല്ല ചോപ്പുണ്ടെങ്കിൽ ഓപ്പറേഷൻ എന്തായാലും വേണ്ടി വരും ഓപ്പറേഷനൊരു ഇരുപതിനായിരം ടു ഇരുപത്തഞ്ച് ആ റേഞ്ച് എന്തായാലും വരും

നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ നമുക്ക് എന്തായാലും ഒരു ഒരാഴ്ചത്തോളം നമ്മൾ ഇവിടത്തന്നെ നിൽക്കണം ആ അത് കഴിഞ്ഞ ശേഷമാണ് പിന്നെ പോവാൻ പറ്റുള്ളൂ ആ നമുക്ക് എല്ലാം ഇപ്പോൾ ഇവിടുന്ന് ഹോസ്പിറ്റലോട്ട് ഇറങ്ങിയ ശേഷം ഇറങ്ങണ വരെയുള്ള ഫണ്ടാണ് പറയണത് അപ്പോൾ തിങ്കളാഴ്ച ഒരു പതിനൊന്ന് മണിയാണ് നിങ്ങളെ ബുക്കിംഗ് ഞാനിപ്പോൾ പറഞ്ഞേക്കണത് അന്ന് ആ സമയത്ത് വന്നാൽ മതി ഇപ്പോൾ ഇതുവരെ ബുക്കിംഗ് ബാക്കി ഒക്കെയുണ്ട് അതുകൊണ്ടാണ് അടുത്ത മൺഡേ വെച്ചേക്കണത് ആ സമയത്ത് എന്തായാലും വായോ ഇപ്പോൾ അപ്പോൾ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഉപ്പേനെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ഡീല് ചെയ്യാം ഓക്കെ ശരി